ഞാനൊരു പാട്ടു നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ പാടാൻ വലിയ കഴിവുകളൊന്നുമില്ല എന്നാൽ കുറച്ചു പാടും അത്യാവശ്യം പാടുമെന്നല്ലാതെ ഒത്തിരി അതിൻറ്റെ സ്വരവും താളവും അങ്ങനെ ഒന്നും നോക്കിയൊന്നും പാടാൻ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ എൻറ്റെ പിള്ളേരെ എനിക്ക് പഠിക്കണമെന്നാഗ്രഹമുണ്ട് അവരെ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരിയൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വീട്ടിലൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പാട്ടുകൾ പിന്നെ ചില സിനിമ പാട്ടുകൾ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പാടാറുണ്ട് എനിക്ക് പാടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളിക്കാനൊക്കെ കയറുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പാടാറുണ്ട് എനിക്കതൊക്കെ ഒരു ഞാൻ ആസ്വദിക്കുന്ന ആളാണ് പാട്ടു ഞാൻ ആസ്വദിക്കുന്ന ആളാണ് കേ എവിടെ പാട്ടു കേട്ടാലും ഞാനത് കേൾക്കാറുണ്ട് അതു മുഴുവൻ ഞാൻ കേട്ടു നിൽക്കാറുണ്ട് പണ്ടൊക്കെ ഈ വീടുകളിലൊന്നും അങ്ങനെ റേ റേഡിയോ മാത്രമല്ലെ ഉളളു അല്ലാതെ പാട്ടു കേൾക്കാൻ വേറെ സൗകര്യമൊന്നും ഇല്ലയെന്ന് അപ്പോൾ പണ്ടിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പാട്ടു വെക്കുമ്പം അതെല്ലാം ഞാനിന്നു കേട്ട് അതൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു അത് അന്നൊന്നും അത്ര നമുക്ക് അതിൻറ്റെ സാങ്കേതിക വിദ്യകളൊന്നും നമുക്ക് അങ്ങനെയൊന്നും അത്രയൊന്നും അറിയതൊന്നുമില്ല എങ്കിലും അതു ഏകദേശം അതിനോടൊക്കെ ചേരുന്ന രീതിയിൽ ഒപ്പിച്ച് പാടാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അത്രയേയുള്ളു അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ പാട്ടിനോടു വലിയ ഈ പാട്ടിൻറ്റെ ആവർത്ത ആ ഒത്തിരി സംഗ സ്വര സ്വരവും അങ്ങനെയൊന്നും എനിക്ക് അത്രയൊന്നും അറിയത്തില്ല പിന്നെ പാടുമോയെന്നു മാത്രമേയുള്ളു